ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാന മതവിശ്വാസങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളും ഹൈന്ദവരും മുസ്ലിംസും തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഈ പ്രദേശം ക്രൈസ്തവരിൽ തന്നെ സീറോ മലബാർ സീറോ മലങ്കര ലെത്തീൻ വിഭാഗങ്ങളും ഓർത്തഡോക്സ് യാക്കോബായ സി എസ് ഐ തുടങ്ങിയ ഇതര മതവിഭാഗങ്ങളും ഇവിടെ ധാരാളമായുണ്ട് ഹൈന്ദവരുടെ ഇടയിൽ നായർ ബ്രാഹ്മിൺസ് ഈഴവ പി ആർ ഡി എസ് തുടങ്ങിയ തുടങ്ങിയ മത വിഭാഗങ്ങൾ ഹൈന്ദവ വിഭാഗത്തിലുണ്ട് കൂടാതെ നമ്മുടെ ജില്ലയോട് തൊട്ടടുത്ത് പായിപ്പാട് പ്രദേശത്ത് ധാരാളം മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് കുന്നന്താനം പ്രദേശത്ത് ഹൈന്ദവരുടെ ഒരു ആഘോഷ പരിപാടി വന്നാലും അവരോട് സഹകരിക്കും ക്രിസ്ത്യൻസിൻ്റെ ഒരു പരിപാടി വന്നാൽ ക്രിസ്ത്യാനികളുടെ പരിപാടികൾക്ക് ഹൈന്ദവരും വന്ന് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു പ്രദേശമാണിത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ ഉള്ളതുകൊണ്ടുതന്നെ പല രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരുടേതായ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ നാടും നഗരവുമൊക്കെ ആഘോഷ തിമിർപ്പിലാണ് പള്ളിയിലെ ഒരു പ്രദക്ഷിണം വന്നാലും ഒരു ഓർത്തഡോക്സ് യാക്കോബ വിഭാഗത്തിൻ്റെ റാസ വന്നാലും ഹൈന്ദവരുടെ ഘോഷയാത്രകൾ വന്നാലും എല്ലാം എല്ലാ നാന വിധത്തിലുള്ള നാനാജാതിയിലുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് അവിടെ ബാൻ്റ് മേളവും ചെണ്ടയും ആനപ്പുറത്തുള്ള എഴുന്നള്ളത്തും എല്ലാം നയനാനന്ദകരമായ കാഴ്ചകളാണ് മതങ്ങൾ വ്യത്യസ്തങ്ങളായതുകൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ് സാഹോദര്യത്തോടു കൂടി എല്ലാ മത വിഭാഗങ്ങളും ഒന്നായിക്കൊണ്ട് നന്മയുടെ മുഖം എല്ലാറ്റിലും ദർശിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു